മുപ്പത് മെയ് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രണ്ട് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഏഴ് എട്ട് രണ്ടായിരത്തി പതിനെട്ട്